ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വളരെ കുറച്ച് മാസങ്ങൾ തയ്യൽ ക്ലാസ്സിൽ പോയി തയ്യൽ പഠിച്ചു പിന്നെ ഞാൻ എന്നതാ ഇങ്ങനെ ചെറിയ തുണികളൊക്കെ വെട്ടിപ്പെറുക്കിയൊക്കെ അങ്ങനെ അത്യാവശ്യം മാത്രമൊക്കെ പഠിച്ചു അതിൽ നിന്നും ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് കുറച്ചൊക്കെ പഠിച്ച് എല്ലാം ഒന്നുമില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ പഠിക്കാനൊക്കെയുള്ള ഒരു പ്രേരണയോടെ ഞങ്ങളത് പഠിച്ചു കുറച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കല്ല്യാണമൊക്കെ കഴിച്ച് പോയപ്പം ഞാൻ ഒരു ഒരു കുഞ്ഞായാൽ അടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെ ഞാൻ എനിക്ക് അറിയാവുന്നതു മാത്രം പഠിപ്പിച്ചു പഠിക്കാൻ വന്നു അറിയാവുന്നതു മാത്രം കുറച്ച് മാത്രം എല്ലാം പഠിപ്പിച്ചു ഞാൻ അത് എനിക്കൊരനുഭവമെന്നു പറയട്ടെ ഞാൻ കുറച്ച് പഠിപ്പിച്ച് അവൾ ഇച്ചിരി നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു അവൾ നല്ല പോലെയൊക്കെ എന്തു കാണിച്ചു കൊടുത്താലും അന്നേരം അതു തയ്ക്കുകയും വെട്ടുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെ അവൾ കുറച്ചൊക്കെ അവൾ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം അവൾ ഒരു നല്ല തൽക്കാരിയായി എല്ലാം വകയും തയ്ച്ച് നല്ല ക്ലാസ് ഇട്ട് തയ്ക്കുന്നതിന് തയ്ക്കാനെല്ലാം ഉള്ള ഒരു കിട്ടി അൽപ്പം എല്ലാം ഏതു തുണി എങ്ങനെ തയ്ക്കണമെങ്കിലും തയ്ക്കുകയും ഒക്കെ ചെയ്യും എന്നെ കണ്ടപ്പോൾ ഒരു ദിവസം അവൾ പറഞ്ഞു ചേച്ചി എന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചതല്ലേ അപ്പം ഞാൻ ഇപ്പം എല്ലാം തയ്ക്കും എനിക്കത് മനസ്സിലായി ഞാൻ എല്ലാ വകയും തയ്ച്ച് ഇഷ്ടം പോലെ പൈസയൊക്കെയുണ്ടാക്കി എന്നവൾ പറഞ്ഞത് എനിക്കതു വളരെ സന്തോഷമുണ്ട് എനിക്കൊരു നല്ലൊരു നല്ലൊരു ഇതായിരുന്നു